ബഹുമാനപ്പെട്ട സാർ ഞാനിന്ന് വളരെ സന്തുഷ്ടനാണ് വേറൊന്നുമല്ല ഒരുപാട് നാളായി ഞാൻ കാത്തിരുന്ന ഒരാഗ്രഹം ഇന്ന് സഫലമായിരിക്കുന്നു കുറച്ച് നേരങ്ങൾക്ക് മുമ്പാണ് എനിക്കൊരു കത്ത് ലഭിച്ചത് അതിലെന്താ എഴുതിയിരുന്നതെന്ന് വെച്ചാൽ വെച്ചാൽ വിദേശത്ത് ഒരു സാംസ്കാരിക വിനിമയ പരിപാടിയിൽ പങ്കെടുക്കാനായി ഒരവസരം കിട്ടിയിരിക്കുന്നു എന്റെ കൊച്ചിലേ മുതലുള്ള വലിയൊരാഗ്രഹമായിരുന്നുവത് പല തവണ ഞാൻ എന്റെ വീട്ടുകാരുമായി സംസാരിക്കുകയും എടുക്കുകയും ചെയ്തിരുന്നു അവരെല്ലായ്പ്പോഴും എന്നോട് പറഞ്ഞത് നിനക്ക് നല്ല കഴിവുണ്ട് നീ പരിശ്രമിച്ചാൽ നിനക്ക് കിട്ടും എന്നത് മാത്രമായിരുന്നു അത് എനിക്കിന്ന് സഫലമായത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ് ഇതറിഞ്ഞതും ഞാനാദ്യം എന്റെ മാതാപിതാക്കളെയാണ് അറിയിച്ചത് അവരെന്നോട് പറഞ്ഞത് അടുത്തത് നിന്റെ മാഷെ വിളിച്ച് പറയുക അദ്ദേഹം ഇതിന് വേണ്ടി കുറേ പ്രയത്നിച്ചതാണ് നിനക്കൊരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സാറിനോട് പറയുന്നത് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത് എടുക്കേണ്ടത് അടുത്ത മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാന്നൊന്നും എനിക്കറിയില്ല മാഷിൻ്റെ ഒരുപാട് പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഒന്നും എത്ര മാത്രം നന്ദി പറഞ്ഞാലും തീരില്ല വിദേശത്ത് പോകാനായി എനിക്ക് ഒരു പാസ്പോർട്ട് വേണം അതിന് വേണ്ടി എങ്ങനെ അപേക്ഷിക്കണം എന്നൊന്നും എനിക്കറിയില്ല അടുത്ത മാസമാണ് പോക്ക് കാര്യങ്ങൾ എല്ലാം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത് ദിവസത്തിനുള്ളിൽ എനിക്ക് പാസ്പോർട്ട് വേണം ഞാൻ നന്നായി നൃത്തം ചെയ്തതും എടുത്തതും എല്ലാം ദൈവത്തിൻ്റെ കൃപ അല്ലാണ്ട് വേറെന്ത് പറയാൻ ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചും എടുത്തും ഇങ്ങനെ വന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ദൈവം ഇന്നെനിക്കിങ്ങനെയൊരു നല്ലൊരവസരം ഒരുക്കി തന്നത് അതിൽ എൻ്റെ മാഷിനും ഒരുപാട് പങ്കുണ്ട് പല സ്ഥലങ്ങളിലായി മത്സരിക്കാൻ പോകുമ്പോൾ എല്ലാം മാഷ് എനിക്ക് നല്ലൊരു പിൻതുണയാണ് തന്നിരുന്നത് അതുകൊണ്ട് തന്നെ ആ പിന്തുണകളൊന്നും എനിക്ക് തളളിക്കളയാനോ മറക്കാനോ സാധിക്കുകയില്ല നാളെ ഒരു സമയത്ത് ഈ വിദേശത്ത് പോയി എൻ്റെ നൃത്തങ്ങൾ നല്ല രീതിയിൽ ചുവടുവെച്ച് ബാക്കിയുള്ളതു കൂടെ അറിയുമ്പോൾ ബാക്കിയുള്ള ജനങ്ങളറിയുമ്പോൾ അത് സാറിനും കൂടെ ഒരു നേട്ടപ്പോരാണ്

ഒരുപാട് നാൾ ഇതിന് വേണ്ടി ശ്രമിക്കുകയും പല രീതിയിലുള്ള നൃത്തങ്ങൾ ആടി എടുത്ത് പല രീതിയിലുള്ള ചാനലുകൾ ഇടുകയും ചെയ്തു പക്ഷേ അതിൽ നിന്നും എനിക്കൊരു മുന്നേറ്റമുണ്ടായില്ല ഇത് എൻ്റെയൊരു കൂട്ടുകാർ മൂലം മൂലം അറിഞ്ഞ ഒരു കാര്യമായിരുന്നു വിദേശത്തുള്ള ഈയൊരു പരിപാടിയെപ്പറ്റി അതിന് വേണ്ടി ഞാൻ ഒരുപാട് ഓടുകയും എടുക്കുകയും സാറിനോട് പറയുകയും സാറതിലെന്നെ സഹായിക്കുകയും ചെയ്ത് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് അവർക്കയച്ചതാണ് അവരതംഗീകരിക്കുകയും അവിടേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിന് വേണ്ടി എനിക്ക് അത്യാവശ്യമായി വേണ്ടത് സാറിൻ്റെ ഒരു വലിയ സഹായം എന്നുള്ള രീതിയിൽ പാസ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ആയിരുന്നാൽ മാത്രമേ അടുത്ത മാസം എനിക്ക് ഇരുപതാം തീയ്യതിയിലേക്ക് ഇവിടുന്ന് അങ്ങോട്ടേയ്ക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണച്ച സാറിനും ബാക്കി എല്ലാ രീതിയിലും എന്നെ സഹായിച്ച ഞാൻ പ്രാർത്ഥിച്ചതുമായ എൻ്റെ ദൈവത്തിനാണ് എനിക്കൊരുപാട് നന്ദി പറയാനുള്ളത്